നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഏറെക്കുറേ എല്ലായിടത്തുമുണ്ടാവും എല്ലാവരും ഒരു ഉള്ഭാഗത്തു ജീവിക്കുന്ന ആളുകളാവും അപ്പോള് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ രീതിയിലുള്ള ഡ്രെയ്നേജ് സിസ്റ്റമൊന്നും അവിടെ ഉണ്ടാവില്ല സ്വാഭാവികായിട്ടും നമ്മള് റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്നതുപോലെ ചെറിയ എന്തെങ്കിലും ചാലുകള് റോഡ് സൈഡിലൂടെയൊക്കെ ഒഴുകുന്ന വെള്ളങ്ങള് അതാവും സ്വാഭാവികമായിട്ടും ഒരു ഉൾപ്രദേശങ്ങളിലുള്ള ഡ്രെയ്നേജ് സിസ്റ്റം അപ്പോള് ഇതു ചിലപ്പോള് ചില ടൈമില് മഴ നല്ല കൂടുന്ന ടൈമില് ഇതെന്താവാം ചിലപ്പോള് റോഡുകളിലേക്കു വെള്ളം കയറാനും അതുപോലെ തന്നെ വീടുകളിലേക്കു വരെ വെള്ളം കയറാനൊക്കെ എന്താവും ഇതു കാരണമാവും ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തത് വീടുകളിലേക്കും റോഡ് റോഡില് റോഡുകള് പാലം അങ്ങനെ തുടങ്ങി പാലം വരെ മുങ്ങാനുള്ള ഓരോ കാരണങ്ങള് ഒരു ഡ്രെയ്നേജ് സിസ്റ്റം ഇല്ലാത്തതുകാരണം എന്താവും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവാം അപ്പോള് ഇതിന് പ്രധാനമായിട്ടും ഈയൊരു പ്രശ്നം പരിഹരിക്കാന് ഈ ഒരു ഡ്രെയ്നേജ് സിസ്റ്റം ഒന്നുകൂടി മെച്ചപ്പെടുത്താന് നമുക്കു ചെയ്യാൻ പറ്റുന്ന ഒരഞ്ചു കാര്യങ്ങളുണ്ട് അതില് ഒന്നാമതായി നമ്മള് നോക്കേണ്ടത് ആധുനികമായിട്ട് നമ്മള് ഒരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോള് ഉദാഹരണത്തിന് ഈ രണ്ട് റോഡ് സൈഡിലൂടെ ഒഴുകുന്നതെന്നു പറഞ്ഞാല് അത് അത്ര ഒരു എന്താണ് നമുക്കു തന്നെ കണ്ടാല് മനസ്സിലാവില്ല എന്തേലും ഒരു നല്ലൊരു സിസ്റ്റമല്ല അപ്പോള് അണ്ടർഗ്രൗണ്ടിലൂടെയാകുമ്പോള് കൂടുതലായിട്ട് ഒന്നുകൂടി മെച്ചപ്പെട്ട സംവിധാനമായിട്ട് എന്താവും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കീഴില് പഞ്ചായത്തിൻ്റെ കീഴില് അല്ലെങ്കില് മുനിസിപ്പാലിറ്റീൻ്റെ കീഴില് ഇവരുടെ കീഴിലൊക്കെ എന്താണ് ഒരു പരിശോധന വേണം ഇപ്പോള് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊരു ഒരു പരിശോധന പരിശോധനയേ ഇല്ല ഡ്രെയ്നേജെല്ലാം പോലെ നടക്കുന്നുണ്ടോ അങ്ങനെ എന്നൊരു പരിശോധന പോലും നമ്മുടെ നാട്ടിലൊന്നും എവിടെയും നമുക്കു കാണാൻ സാധിക്കില്ല എന്നാല് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവരുടെ കീഴിലായിട്ട് എന്തു വേണം ഒരു പരിശോധന കൊണ്ടുവരാന് നമുക്ക്

നമ്മള് ഈ സ്വാഭാവികായിട്ടും പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് നേരെ തള്ളുക എങ്ങോട്ടാവും വലിച്ചെറിയും അതു നേരെ മഴയത്തു നേരെ പോവുക ഡ്രെയ്നേജില് ഡ്രെയ്നേജിലേക്കാണ് പോവുക അപ്പോള് അതും അവിടെ കെട്ടിനിന്നിട്ട് അതുമൊരു ഡ്രെയ്നേജ് സിസ്റ്റത്തെ നല്ല നല്ല രീതിയിൽ തന്നെ അത് ബാഡായിട്ട് മോശമായ രീതിയില് അതു ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സംവിധാനമാണെന്ത് മഴവെള്ളമങ്ങനെ ശേഖരിച്ചുവയ്ക്കുക എന്നുള്ള അതിലും ഈ പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്നു മഴ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു അതുപോലെ തന്നെ വലിയൊരു ടാങ്ക് അതുപോലെ തന്നെ അതുപോലെ കുറേ സാധനങ്ങള് പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോള് ഇന്നും നമ്മള് അങ്ങനത്തെയൊരു മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു സംവിധാനങ്ങളെന്തെങ്കിലും എടുത്തുവയ്ക്കുകയാണെങ്കില് അതു നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉപകാരമുള്ളൊരു സാധനമായി മാറും അതുപോലെ തന്നെയാണ് സാമൂഹിക പങ്കാളിത്തം അതായത് എല്ലാവരും കൂടി വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്നുരണ്ട് ആൾക്കാര് വർക്ക് ചെയ്യിച്ചിട്ട് എന്തായാലും ഒരിതാകില്ല അതുകൊണ്ടുതന്നെ ഒരു സമൂഹമായിട്ട് എന്തെയ്യണം ഇതിന് ഇതിന് ചെയ്താലേ എന്ത് ഇതിനെ നമുക്ക് ഒരു നല്ല മെച്ചപ്പെടുത്താനായിട്ടു കഴിയുകയുള്ളൂ